അല്ല എച്ച് ആർ മാനേജർ ഞാൻ ഇപ്പം നിങ്ങൾ അയക്കുന്ന പ്രോജക്റ്റ് കണ്ടിരുന്നു അപ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷൻസിന് അനുസരിച്ച് ആ പ്രോജക്റ്റ് കറക്റ്റായിട്ട് വന്നിട്ടില്ല നിങ്ങൾ നിങ്ങൾ ഈ ഇത് നിങ്ങൾ റിക്രൂട്ട് ചെയ്ത് വന്ന ആ വർക്കേഴ്സ് ഞാൻ പറയുന്നതിന് അനുസരിച്ച് ഒന്നും നന്നായിട്ട് ചെയ്യുന്നില്ല അതിന് നിങ്ങൾക്ക് എന്ത് എക്സ്പ്ലനേഷൻ ആണ് എനിക്ക് തരാൻ ഉള്ളത്

അവർ ഹാർഡ് വർക്കിംഗ് അല്ലായെന്നല്ല ഞാൻ പറയുന്നത് ബട്ട് അവർ വർക്ക് നമ്മുടെ കമ്പനിക്ക് ഉതകുന്ന തരത്തിൽ ഉള്ള ആയി വന്നിട്ടില്ല ഇവരുടെ വർക്കും വെച്ചിട്ട് നമ്മൾ പ്രോ നമ്മളെ കമ്പനി അടച്ചുപൂട്ടാൻ മാത്രമേ പറ്റുകയുള്ളൂ നിങ്ങൾ എനിക്ക് വേറെ പുതിയ ഒരു ടീമിനെ എനിക്ക് റിക്രൂട്ട് ചെയ്ത് തരണം ഞാൻ നിങ്ങളെ വിശ്വസിച്ച് അല്ലേ ഇത് ഈ പണി ഏൽപ്പിച്ചത് ഇനി എത്ര സമയം നമ്മൾക്ക് ഇതിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇനിയും ഒരുപാട് പ്രോജക്റ്റ്സ് പെൻഡിംഗ് ആണ് എന്തായാലും എനിക്ക് പ്രോജക്റ്റ് ഒരു വീക്കിനുള്ളിൽ തന്നെ കിട്ടിയെ പറ്റൂ ഓക്കെ എന്നാൽ ഒരു ടു വീക്ക്സ് പ്രോജക്റ്റ് ഇത് സബ്ജക്ട് വിശദമായിട്ട് പഠിച്ചതിന് ശേഷം അവരോട് കാര്യങ്ങൾ ചെയ്യാൻ പറയാം ഇനി ഇനി ഒരു ചാൻസ് തരുന്നതായിരിക്കില്ല

ഓക്കെ ഡോണ്ട് റിപ്പീറ്റ് ദിസ് എഗൈൻ ഓക്കെ